എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരൻ എന്നു പറയുന്നത് കെസ്റ്ററാണ് കെസ്റ്റർ കെസ്റ്ററിനെ ഇഷ്ടമാണ് എം ജി ശ്രീകുമാറിനെ ഇഷ്ടമാണ് അതിനുള്ള കാരണം മോഹൻലാലിൻ്റെ പാട്ടുകളെല്ലാം കൂടുതലും സിനിമയുടെ പാട്ടുകളെല്ലാം പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാറാണ് അപ്പം അതിപ്പോൾ ഏത് സാഹചര്യത്തില് ഒരു ഫിലിമിൻ്റെ ഏത് ഏത് സാഹചര്യമാണോ ആ ഫിലിമിന് ആവശ്യമായിട്ട് ഉള്ളത് അതായത് ഇപ്പം ഒരു വിഷമിക്കുന്ന ഒര് സാഹചര്യമാണെങ്കില് അങ്ങനത്തെ പാട്ടുകളും അല്ലേൽ നല്ല സന്തോഷമായിട്ടുള്ള ഒരു സാഹചര്യം ആണെങ്കിൽ അങ്ങനത്തെ പാട്ടുകളും പാടാൻ കഴിവുള്ള ഒരാളാണ് എം ജി ശ്രീകുമാറ് എനിക്ക് സാറിൻ്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാന് സാറിൻ്റെ പാട്ടിൻ്റെ ഒരു ആരാധകയാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ക്രിസ്ത്യൻ മെലഡി ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സുകളെല്ലാം എനിക്ക് ഇഷ്ടം കെസ്റ്റർ സാറിൻ്റെയാണ് കെസ്റ്ററ് കെസ്റ്റർ സാർ എന്ന് പറഞ്ഞാല് ഈശോയുടെ പാട്ട് നമ്മള് കെസ്റ്റർ സാർ പാടുന്നത് കേട്ട നമ്മളിങ്ങനെ ലയിച്ചിരുന്നു പോവും അങ്ങനെ ഒരു മറ്റുള്ളവരെ തങ്ങളിലേക്ക് തൻ്റെ പാട്ടിലേക്ക് ആകർഷിക്കാനായിട്ട് ഒര് ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ച ഒരു വ്യക്തിയാണ് ഈ കെസ്റ്റർ സാറ് പിന്നെ കൂടുതലും പറയുവാണെന്നുണ്ടെങ്കില് ഒരുപാട് ഗാനങ്ങൾ എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകള് കെസ്റ്റർ സാറിൻ്റെയാണ് കെസ്റ്റർ സാറിൻ്റെ ഈശോടെ ഡിവോഷണൽ സോങ്ങുകൾ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെതന്നെ പുള്ളിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോഴാണെങ്കിലും സ്വന്തം സൗണ്ട് ദൈവത്തിനു വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തിഗാനങ്ങൾ പാടാൻ ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെന്ന് തന്നെ നമുക്ക് കെസ്റ്റർ സാറിനെ കുറിച്ച് പറയാം പിന്നെ എം ജി സാറിൻ്റെ കാര്യങ്ങളാണെങ്കിലും പുള്ളി ഏത് സ്റ്റേജ് ഷോകളിൽ ആണെങ്കിലും പുള്ളിക്ക് ഒത്തിരി ഇഷ്ടമാണ് കുട്ടികളെ കുട്ടികളെ ഒരുപാട് പാട്ടിൻ്റെ കാര്യങ്ങളിലേക്ക് പ്രമോട്ട് ചെയ്യാൻ പുള്ളി മുമ്പോട്ട് വരാറുണ്ട് അതുപോലെ മാർക്കിൻ്റെ കാര്യത്തിലും ഒരുപാട് തമാശ പറയാനാണെങ്കിലും പുള്ളി നല്ലൊരു വ്യക്തിയാണ് വ്യക്തി വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എം ജി ശ്രീകുമാർ സാറ് പിന്നെ നമുക്ക് ആ എം ജി ശ്രീകുമാർ സാറിൻ്റെ പാട്ടുകളാണെങ്കിലും നല്ല നമുക്കൊരു നമ്മുടെ നമുക്കൊരു ഏത് സാഹചര്യം വെച്ചുള്ള പാട്ടുകളാണ് ഓരോന്ന് ആ സിനിമയുടെ ആണെങ്കിലും അല്ലാതെ ഓണപ്പാട്ടുകൾ ആണെങ്കിലും പുള്ളിയുടെ ലളിതഗാനങ്ങൾ ആണെങ്കിലും എന്തും ഒരു സാഹചര്യം അതിനൊത്തു ചേരുന്ന ഒരു സൗണ്ടും ആണ് എം ജി സാറിൻ്റേത് പിന്നെ ഒരുപാട് ഗാനങ്ങള് സാറ് പാടിയിട്ടുണ്ട് അതിലെ ഒരുപാട് ഒത്തിരി പാട്ടുകള് മോഹൻലാൽ മോഹൻലാലിന് വേണ്ടി മോഹൻലാൽ അഭിനയിച്ച സിനിമയ്ക്ക് വേണ്ടി പുള്ളി എം ജി സാറ് പാടിയ ഒരുപാട് പാട്ടുകള് എനിക്കിഷ്ടമാണ് ഒപ്പം ഒത്തിരി ഒത്തിരി സിനിമകളുണ്ട് സാഹല്യം വാത്സല്യം അതുപോലെയുള്ള സിനിമകൾ ആണെങ്കിലും എം ജി സാറ് പാടിയിട്ടുണ്ട് നല്ല പാട്ടുകള് ഉണ്ട് പാട്ടുകള് ഒരുപാട് പാട്ടുകളും അതിലെ അതിലെ വരികളും ഒക്കെ വരികൾ എഴുതിയ ആൾക്കാരാണെങ്കിലും അതുപോലെ പാടി ഫലിപ്പിക്കുക വരികൾ എഴുതുന്നതില് പോലെ തന്നെ പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് അതിലും നല്ലൊരു അതിലത്രയും കഷ്ടപ്പാടുകൾ ഉണ്ട് എന്നാലും നന്നായിട്ട് ചെയ്യുന്ന ഒരാളെന്ന് തന്നെ എനിക്ക് പറയാനായിട്ട് സാധിക്കും